ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന കളികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ക്രിക്കറ്റ് ഫുട്ബോള് ഇങ്ങനത്തെ കളികൾ വോളീബോൾ പിന്നെ ഇങ്ങനത്തെ കളികളാണ് കൂടുതലായിട്ടും കളിക്കുന്നത് പഴയ കളികളൊന്നും കുട്ടികൾ എന്താന്ന് പോലും അവർക്കറിയാത്ത ഒരു അവസ്ഥക്കെയാണ് പഴയ കളികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തം കല്ല് കളി സാറ്റ് കളി ഇതൊന്നും ഇപ്പൊഴത്തെ കാലത്തെ പിള്ളേർ കളിക്കുന്നൊന്നും ഇല്ല ഇപ്പോൾ ക്രിക്കറ്റ് കളിയും ഫുട്ബോള് കളിയും തന്നെ റെയറായിട്ടാണ് പിള്ളേർ പുറത്തിറങ്ങുന്നത് തന്നെ കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫോണിന്റെ ഉള്ളിലുള്ള ക്രിക്കറ്റ് കളീം ഫുട്ബോള് കളീം കളിക്കാനാണ് അവർക്ക് കൂടുതലായിട്ടും താല്പര്യം പിന്നെ പല അതായത് ഫോണിൽ പലതരം ഗെയിംസ് പബ്ജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും പിള്ളേർ അഡിക്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പൈസ കൊടുത്തിട്ട് വരെ ചെയ്യുന്ന പിള്ളേർ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാനൊന്നും വലിയ താല്പര്യൊന്നുമില്ല വീടിന്റെ ഉള്ളിൽ അടഞ്ഞിരുന്നിട്ട് അങ്ങനെ ഫോൺ വിളിക്കാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും താല്പര്യം അപ്പം നല്ല ഇപ്പോഴത്തെ കളികളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിപ്പോൾ കളിക്കുന്ന പിള്ളേരും കുറവാണ് ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരൊന്നും അങ്ങനെ പോയിക്കാണാത്ത കുറെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണലും നല്ല രസമാണ് ഇങ്ങനത്തെ കളികൾ കാണുന്നതും കളിക്കാനുള്ള ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ മൂന്ന് കളികളൊക്കെയാണ് കൂടുതലായിട്ടും കളിക്കുന്നത്